ഫോട്ടോഗ്രാഫീന്ന് പറഞ്ഞപ്പോൾ നമ്മള് നമുക്ക് മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒര് ഇതാണിപ്പോൾ ഓരോ മൊമൻറ്റും നമ്മളത് ഒര് ഫ്രെയിമിൽ പകർത്തി വയ്ക്കുക അതായത് നമുക്ക് പിന്നീട് ഇപ്പോൾ ചില മുഹൂർത്തങ്ങൾ അതായത് ചില ബ്യൂട്ടിഫുൾ മൊമൻറ്റ്സ് അത് നമ്മളൊര് ഫോട്ടോയിലൂടെ നമ്മുടെ ജീവിതകാലം മൊത്തം കാണാവുന്ന രീതിയിൽ എടുത്ത് വെക്കാവുന്ന നല്ല രീതിയിലത് ക്യാപ്ച്യുറ് ചെയ്ത് വയ്ക്കുക നമ്മക്കിപ്പോൾ ഒ ഓരോ മൊമൻറ്റും നമുക്ക് പിന്നീടെപ്പോൾ വേണമെങ്കിലും നമുക്കത് കണ്ട് ആസ്വദിക്കാം അതിന് വേണ്ടി നമ്മള് എട്ത്ത് വയ്ക്കുക അതാണ് ഫോട്ടോ ഫോട്ടോനെ നമ്മള് ജീവിതത്തില് വളരേ പ്രാധാന്യവുണ്ട് നമ്മൾക്ക് കഴിഞ്ഞ് പോയ ഓരോ ബ്യൂട്ടിഫുൾ മൊമൻറ്റ്സും നമുക്ക് പിന്നീട് കിട്ടീന്ന് വരില്ല അപ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും കാണാനും ആസ്വദിക്കാനും ഈയൊരു ഫോട്ടോയിലൂടെ നമുക്ക് സാധിക്കും ഫോട്ടോഗ്രാഫീന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സം ഇതാണ് ഇപ്പോൾ ഒരുപാട് വെറൈറ്റിയില് നമ്മളുടെ ആ ഒരു ഫോട്ടോഗ്രാഫർടെ കഴിവാണ് ഈ ഫോട്ടോ എങ്ങനെ എടുക്കണം അതെങ്ങനെ എഡിറ്റ് ചെയ്യണം എവിടെ ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യണം എന്ന്ള്ളതൊക്കെ അതൊരു നല്ല ഒരു ഫോട്ടോഗ്രാഫർക്കെ സാധിക്കുള്ളു സാധാരണ നമ്മക്കിപ്പോൾ ഫോട്ടോ ആർക്ക് വേണെങ്കിലും എടുക്കാം പക്ഷേ ഫോട്ടോഗ്രാഫീന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഒരു കഴിവാണ് ഓരോ പിക്ച്ചറും ക്യാപ്ച്ചർ ചെയ്യുന്നത് രീതി ഓരോ ഫോട്ടോയും വളരേ മനോഹരമാക്കുന്നത് ഓരോ ഫോട്ടോഗ്രാഫർടെയും കഴിവാണ് അത് ഒരു പാഷ്നായിട്ടാണ് നടക്കുന്നവർക്ക് ഈ ഫോട്ടോഗ്രഫീ ഒരൂ പാഷ്നായി കൊണ്ട് നടക്കുന്നവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഫോട്ടോ എടുക്കാനുള്ള പ്രചോദനം എന്നൊക്കെ പറയുന്നത് അതിനോടുള്ള ഒരു താൽപര്യം തന്നെയാണ്